ഹലോ ഫ്ലിപ്പ്കാർട്ട് അല്ലേ ആ ഞാൻ നിങ്ങളെ ഒരു ടീഷർട്ട് ഓർഡെർ ചെയ്തിരുന്നു രണ്ട് ദിവസത്തിന് അകം ഡെലിവെറി കിട്ടി സംഭവം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല ഉപയോഗിച്ചൊക്കെ നോക്കി സംഭവം നല്ല ക്വാളിറ്റി ഒക്കെയാണ്

ഇതുപോലത്തെ വേറെ കുറേ സാധനങ്ങൾ യൂസ് മേടിച്ചായിരുന്നു അതും കുഴപ്പം ഇല്ല നല്ല ക്വാളിറ്റി ഒക്കെ ആയിരുന്നു പിന്നെ പറഞ്ഞ അതേ സമയത്ത് തന്നെ ഡെലിവെറിയൊക്ക ചെയ്തു രണ്ട് ദിവസം കൊണ്ട് സാധനം കിട്ടുന്നുണ്ട് പിന്നെ പുതിയ പുതിയതൊക്ക നോക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ പിന്നെന്നാ എങ്ങനെ ആണെങ്കിലും നിങ്ങളുടെ ഡെലിവെറി കുഴപ്പം ഇല്ല കൃത്യം പറഞ്ഞ ടൈമിംഗിൽ തന്നെ കൊണ്ടു വരുന്നുണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത ഫണ്ടൊക്കെ ആണ് പിന്നെ ഓരോ ഓരോ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഓഡർ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്തൊക്കെ ആണെങ്കിലും നിങ്ങളുടെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി പൂർവമായ സാധനങ്ങളൊക്കെ ആണ് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ആണ്